പെട്രോളിൻ്റെ വില വർധന പിന്നെ അതായത് സൈക്കിൾ യാത്രയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ടൂ വീലർ എന്തിനാ മെയിൻ ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ടൂ വീലറിന് ഫോർ വീലറിനെക്കാളും മൈലേജ് കൂടുതലാണ് അപ്പോൾ നമ്മള് മെയിൻ ആയിട്ട് അതിന് വേണ്ടിയാണ് എടുക്കുന്നത് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മൈലേജ് കൂടുതല് അതായത് മൈലേജ് കൂടുതലാണല്ലോ അപ്പോൾ നമുക്ക് ഫോർ വീലറില് ചിലപ്പം മുപ്പത് അതായത് ഇരുപത്തിനാല് കിലോമീറ്റർ ചിലപ്പോൾ പത്തൊമ്പത് കിലോമീറ്റർ പിന്നെ അങ്ങനെയൊക്കെ കിട്ടുകയുള്ളു പക്ഷെ നമുക്കിപ്പം മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ലിറ്റർ എണ്ണ അടിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അറുപത് കിലോമീറ്റർ മുകളിൽ പോകാം അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് അതിന് വേണ്ടിയാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഇവ ഇവരതിനനുസരിച്ച് എണ്ണയുടെ വില കൂട്ടികൊണ്ടിരിക്കുംതോറും നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ശേഷി എല്ലാം പിന്നെ കുറഞ്ഞ് കൊണ്ടിരിക്കും പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പരിസ്ഥിതിക്കത് ദോഷമാണോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദോഷമാണ് അമിത ഇന്ധന ഉപയോഗം കാരണം അതായത് പുക ഉണ്ടല്ലോ പുക മലിനീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിക്കും അത് ഭയങ്കര ദോഷമാണ് അതേപോലെ നമുക്കും ദോഷമാണ് അതായത് മാലിന്യം ആണല്ലോ അതു കൊണ്ട്